നമ്മളുടെ വിനോദ സഞ്ചാരത്തേയും അതുപോലെതന്നെ ഗ്രാമീണ സമൂഹത്തിലെ യാത്രയൊക്കെ ഒന്നും കൂടി മെച്ചപ്പെടുത്തണമെന്നു തന്നെയാണ് എൻ്റൊരഭിപ്രായം കാരണം നമ്മളിപ്പം പോകുമ്പോൾ സുരക്ഷിതത്വമെന്നു പറയണത് ഭയങ്കര കുറവാണ് കാരണം നമ്മളുടെ റോഡാണെന്നുണ്ടെങ്കിലും അതുപോലെതന്നെ ഇപ്പം ഒരു സ്ഥലത്തിക്ക് പോകുകയാണെങ്കിൽ തന്നെ അവിടെയുള്ള സുരക്ഷിതത്വം കുറവാണ് അപ്പം നമ്മൾ ഈ സുരക്ഷിതത്വം നോക്കിയാണ്ടു തന്നെ ഒരുപാട് പേർ ഇപ്പോൾ സ്കൂളിൽ നിന്നാണോ അല്ലെങ്കിൽ എവിടെ നിന്നാണെങ്കിലും നമ്മളെ വിടാൻ നമ്മുടെ പേരെന്റ്സിനൊരു പേടികാ പേടിയുണ്ടാകും കാരണം എന്ത് കൊണ്ടാണെന്നു വെച്ചാൽ നമ്മളുടെ ഇതിന്റേതൊക്കെ കുറവായതു കൊണ്ടാണ് അപ്പോൾ എൻ എവിടെയൊക്കെയാണ് എവിടേക്കു പോകാനുണ്ടെങ്കിലും എന്തൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിലും നമ്മളുടെ ഗതാഗതം മീൻസ് യാത്രാ സൗകര്യം കുറച്ചും കൂടിയും മെച്ചപ്പെടുത്തണം കാരണം റോഡ് അതുപോലെതന്നെ അപ്പോൾ ആ വലിയ വലിയ സ്ഥലങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ വേലി അതുപോലെ തന്നെ ഇങ്ങനെ ഇപ്പോൾ മൂന്നാറിലൊക്കെ നമ്മൾ പോകുമ്പോൾ തന്നെ ഒരുപാട് ഞാനപ്പടത്ത് പോയി മൂന്നാർ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയപ്പോൾ ഒരുപാട് പേരിങ്ങനെ പാറയിൽ പാറമെന്റ് പാറേന്റെ മേലേലും ഇങ്ങനെ ഒരുപാട് പേരിങ്ങനെ നിൽക്കാ അപ്പോൾ ഒരാളെങ്ങ് വീണാൽ അതങ്ങനെ താഴത്തകങ്ങടെ പോകും അതിൻ്റെ കൂടെ വേറാൾക്കാരും കൂടി മുങ്ങാനുള്ള സാദ്ധ്യത അവിടെ കൂടുതലാ അപ്പോൾ അവിടെയൊക്കെയായിരുന്നാലും നമ്മൾ എന്താ പറയുക ഒരു സേഫായിട്ടുള്ള സേഫ് സോൺ ആക്കി വെക്കാനുള്ള രീതീയിൽ ചെയ്യണം അപ്പോൾ അതൊക്കൊരു വലിയ കാര്യം തന്നെയാണ് അപ്പം ഗ്രാമീണ സമൂഹത്തിലെ യാത്രയൊക്കെ യാത്രയേയും വിനോദ സഞ്ചാരത്തെയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മൾ ഒരുപാട് ചെയ്യേണ്ടതുണ്ട് ഇനിയും ഇപ്പോഴൊക്കെ ഇന്നത്തെ കാലത്തതൊക്കെ മെച്ചപ്പെട്ട് വന്നു കൊണ്ടിരിക്കുകയാണ് പക്ഷേ എന്നാലും ഒരു പൂർണ്ണതയിലേക്ക് അതു തീർച്ചയായിട്ടും എത്തിയിട്ടില്ലയെന്നു തന്നെ പറയാം എൻ്റൊരഭിപ്രായത്തിൽ അപ്പോൾ അതൊക്കെ നമ്മളൊന്നുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണെൻ്റൊരു അഭിപ്രായം